ഹലോ ബ്രോ എൻ്റെ പേര് അര്ജുന് എസ് കുമാർ ഞാൻ ഒരു പുതിയ വാച്ചിന് സ്മാർട്ട് വാച്ചിനായിട്ട് ഓർഡറ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊന്ന് എനിക്ക് ലഭ്യാവുമോ എന്നാണ് ഇതിൻ്റെ ഡെലിവറി ഡേറ്റെന്നും മറ്റും എനിക്ക് ലഭ്യമാവുമോ പിന്നേ അത് പരമാവധി നേരത്തേയാക്കാൻ പറ്റുമോ ഡെലിവറി എന്താണ് ചെയ്യാൻ പറ്റുക നമുക്ക് പെട്ടെന്നാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എങ്ങനെ വാച്ച് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാച്ചായിരിക്കില്ലേ ഇതെനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ ഈ വാച്ചിനിനിയെന്ത് കംപ്ലൈൻ്റുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റുമോ സാധ്യമാവുമോ ഇതിന്റെ നല്ല ഫീച്ചേഴ്സൊക്കെ അല്ലേ സ്മാർട്ട് വാച്ച് താങ്ക് യു വിവരങ്ങൾക്ക് നന്ദി